എൻ്റെ തോട്ടത്തില് ഉണ്ടാകുന്ന പൂക്കളും പഴങ്ങളും ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്കാകെ പതിനഞ്ച് സെൻ്റെ് സ്ഥലമേ ഉള്ളു അപ്പം മെയിനായിട്ടെന്നു വെച്ചിട്ടുണ്ടെങ്കില് അതില് കുറച്ച് പൂച്ചെടികളുണ്ടെങ്കിലും അത് പൂച്ചെടി ഫ്രണ്ടില് അതായത് ഫ്രണ്ടില് നമ്മുടെ മുറ്റത്തിൻ്റെ അവിടെയാണ് കൂടുതല് പൂച്ചെടിയൊക്കെ വയ്ക്കുക പിന്നെ തോട്ടത്തിലൊന്നും പൂച്ചെടിയൊന്നും ഇല്ല അപ്പം ആ പൂച്ചെടികളൊക്കെ ഏതാന്ന് വെച്ചാൽ കൂടുതലും പ്ലേറ്റ് ചെടികള് അങ്ങനെയുള്ളതൊക്കെയാണ് ഉള്ളത് പിന്നെ തുളസി റോസ് ചെടികളൊക്കെ വളരെ കുറവാണ് റോസ് ചെടിയൊക്കെ വളരെ കുറവാണ് അതങ്ങനെ പിടിക്കുന്നില്ല നമ്മളുദ്ദേശിച്ചത് പോലെ പിടിക്കുന്നില്ല കൂടുതലും പ്ലേറ്റ് തന്നെയാണ് അതായത് പല കള്ളറുള്ളത് അപ്പം അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് ഒരു പരിധി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടു വലിയതാകുമല്ലോ അപ്പം നമ്മളത് വെട്ടി വെട്ടി കൊടുക്കും എ വെട്ടിക്കൊടുക്കുമ്പം ഇപ്പം വീട്ടിനടുത്തുകൂടെ ഏതേ ചേച്ചിമാരൊക്കെ ചേച്ചിമാരൊക്കെ കാണുമ്പം ഓരോ കൊമ്പ് ചോദിക്കും അപ്പം അവർക്കൊക്കെ കൊടുക്കും ചെടിയൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ പഴങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് റംബൂട്ടാൻ്റെ മരമുണ്ട് അതില് കുറെ റംബൂട്ടാനുണ്ടാവും അപ്പം ഞങ്ങളതിനെ വിൽക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല വീടിനടുത്തുള്ളവർക്കു കൊടുക്കും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് കുടുംബക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കും റംബൂട്ടാനൊക്കെ അപ്പം അങ്ങനയെ ചെയ്യാറുള്ളൂ പിന്നെല്ലാവർക്കും അതായത് കുടുംബക്കാർ തന്നെ കുറെ പേരുണ്ടാകുമല്ലൊ പിന്നെ വീടിനടുത്തുള്ളവര് അങ്ങിനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ പിന്നെ കടയിലൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല പഴങ്ങളെന്നുവെച്ചാൽ റംബൂട്ടാൻ അതുമാത്രമെ ഉള്ളു തോട്ടത്തില്